ഞങ്ങൾ ഒരു അഞ്ചു പേർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ക്യാബിൻ്റെ വില അന്വേഷിക്കുന്നത് നാലുപേർക്ക് ഇരിക്കാവുന്ന ക്യാബിൻ്റെ വില എത്രയാണ് ആറുപേർക്ക് ഇരിക്കാവുന്ന ക്യാബിൻ്റെയോ അതെന്തുകൊണ്ടാണ് ഈ വില ഇവിടെ വ്യത്യാസം നാലുപേർ ഇരിക്കാവുന്ന ക്യാബിനും ആറുപേർ ഇരിക്കാവുന്ന ക്യാബിനും ഒരേ ഇതിലല്ലേ പോകുന്നത് അത് എന്തുകൊണ്ടാണ് ആ വില വ്യത്യാസം ഞങ്ങൾ അഞ്ചുപേർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് നാലുപേരും ഇരിക്കുന്ന ക്യാബിൽ ഞങ്ങൾ അഞ്ചുപേർ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോഴുള്ള റേറ്റ് അഡ്ജസ്റ്റ് ചെയ്താണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ നാലുപേരുടെ ആ ഒരു കൂലി മാത്രമല്ലേ എടുക്കാൻ പാടുള്ളൂ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിൽ കൂടുതൽ അഞ്ചാളുടെ കൂലി വേണമെന്ന് പറയുന്നത് ആറുപേരുടെ ക്യാബിൽ ഞങ്ങൾ അഞ്ചു പേർ മാത്രമേ പോകൂളളു എന്തുകൊണ്ടാണ് അതിൻ്റെ വില കുറയ്ക്കാത്തത് രണ്ടും ബാലൻസായിട്ട് വേണ്ടേ